കൃഷി മത്സ്യ ബന്ധനം മൃഗ പരിപാലനം കൃഷി ഉത്പാദനം കൃഷി എന്നിവയിൽ സാങ്കേതിക വിദ്യ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ഈ കൃഷി മത്സ്യ പിടുത്തം പണ്ട് മുതൽ തന്നെ ഉള്ളതാണ് ഈ കൃഷി അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ് പണ്ട് മുതൽ നമ്മുടെ എന്ന പൂർവ്വികർ തൊട്ട് ഇതൊക്കെ സാങ്കേതിക വിദ്യയൊന്നുമില്ലാതെ അത് നന്നായിട്ട് പരിപാലിക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഉല്പാദിപ്പിക്കുക പെട്ടെന്ന് ഈ പറഞ്ഞ മത്സ്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഒരു അഞ്ചും പത്തും മീൻ കിട്ടിയിട്ട് കാര്യം ഇല്ലല്ലോ നമുക്കിപ്പം അത് നമ്മൾ ഒരു ബിസിനസ്സ് ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം നമ്മൾ വിൽക്കാനും നമ്മുടെ ജീവിത മാർഗമാണല്ലോ അപ്പം നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും ആയിട്ട് ഒത്തിരി ആവശ്യമുണ്ട് ഒത്തിരി ഒത്തിരി ഒത്തിരി മീനുകളും ഒത്തിരി ഒത്തിരി ഫല ഭക്ഷ്യങ്ങൾ നമ്മൾക്കാവശ്യമുണ്ട് അതു മാത്രമല്ല നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ദിവസവും നമുക്ക് ഈ ഒരു ഈ ഒരു നിശ്ചിത അളവിൽ നമുക്ക് വീണ്ടും അത് ഉല്പാദിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ പണ്ട് മുതൽക്കെ ഉള്ള രീതിക്ക് പോയാൽ അത് ശരിയാകുകയില്ല അതിനാൽ തന്നെ നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കൃഷി ഉൽപ്പാദിപ്പിക്കെ മീനുകളെയാണേൽ തന്നെ നമുക്ക് കപ്പലേലും വള്ളത്തേലുമൊക്കെ പോയി മീൻ പിടിക്കാനും വലയിടാനും ഒക്കെ ചൂണ്ടയിടാനുമൊക്കെ പുതിയ പുതിയ സാങ്കേതിക വിദ്യ വന്നത് കൊണ്ട് വളരെയധികം പ്രയോജനമാണ് കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും കീടനാശിനി ഈ കീടങ്ങൾ അങ്ങനെ പിന്നെ നല്ല നല്ല വളങ്ങളും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് അതു മാത്രമല്ല അതിനെ തക്ക സമയത്ത് താനെ വെള്ളം ഒഴിച്ച് നനയ്ക്കാനുമുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതിലുള്ള സാങ്കേതിക വിദ്യ കാരണം മനുഷ്യൻ്റെ പാതി പണി കുറഞ്ഞു കിട്ടുന്നു നമുക്ക് അത്ര അത് അദ്ധ്വാനിക്കേണ്ടതായി വരുന്നില്ല അദ്ധ്വാനിക്കേണ്ടതായി വരുന്നില്ല മാത്രമല്ല നല്ല നല്ല ഉൽപാം നല്ല നല്ല ഭക്ഷങ്ങളും നല്ല നല്ല ക്ഷീരോത്പാദനവും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നീട് വരുന്ന ഈ മത്സ്യങ്ങൾ മത്സ്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ടല്ല അപ്പം അതിനു കല്ലുപ്പിട്ടും അങ്ങനെ പല പല പല സാങ്കേതിക വിദ്യ ഉള്ളതു കൊണ്ട് നമുക്കൊരു കുറച്ചു കൂടി ദിവസം നമുക്കത് പിടിച്ചു വെക്കാൻ സാധിക്കും പിന്നീട് ഈ മീൻ മല നമ്മൾ മനുഷ്യന്മാരിടുന്ന മീൻമലാണേല എന്താ ഒരു അതിനൊരു പരിധിയുണ്ട് ഒരു നമുക്ക് കുറച്ച് മീനുകളെ കിട്ടത്തുള്ളൂ പിന്നെ ഈ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ നമുക്ക് കപ്പലേലൊക്കെ പോയി നല്ല പോലെ നല്ലൊരു തുകയുടെ നല്ല വലിയ വലിയ മീനുകളെ വരെ നമുക്ക് പിടിക്കാൻ സാധിക്കും പിന്നെ കൃഷി കൃഷി നമുക്ക് വളരെ നല്ലൊരു ഇടയിൽ നല്ല സ്പേസിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൃഷി നടത്താം അതിനു തക്ക വരും നമുക്ക് ആ കുറേയൊക്കെ പണി നമ്മൾ തന്നെ എടുക്കണം പിന്നെ സാങ്കേതിക വിദ്യ സഹായിച്ചിട്ടുണ്ട് എളുപ്പമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും